ഹലോ വിൽട്ടൻ റെസ്റ്റോറൻറ്റ് അല്ലേ ആ ഞാനേ ഒരു പതിനഞ്ച് മിനിറ്റ് മുന്നേ ഒരു കോഫി ഓർഡർ ചെയ്തിരുന്നു ഒരു കോഫിയും ഒരു സ്നാക്കും സാൻവിച്ച് ആണെന്ന് തോന്നുന്നു കേട്ടോ അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് തന്നപ്പോൾ അതിന് ചൂട് തീരെ ഉണ്ടായിരുന്നില്ല അപ്പം നിങ്ങളെ പാക്കേജിങ് ശരിയല്ല പാക്കേജിങ് ശരിയല്ല എന്നല്ല പാക്കേജിങ് വെൽ പ്രോപ്പർ അല്ല എന്ന് ഞാന് കസ്റ്റമർ കസ്റ്റമറിനോട് അല്ല ഡെലിവറി ബോയിനോട് ഒന്ന് ഒരു സജഷൻ കൊടുത്തിരുന്നു അപ്പോൾ ഈ പ്രാവശ്യം അത് ഒരിക്കലും റിപീറ്റ് ചെയ്യരുത് കാരണം നമുക്ക് നിങ്ങൾക്ക് അറിയാമല്ലോ കോഫി സാൻവിച്ച് ഒക്കെ ചൂടില്ലാണ്ട് നിങ്ങൾ അവിടെനിന്ന് ഒരു പതിനഞ്ച് എന്തായാലും അവിടെനിന്ന് എനിക്ക് വീട്ടിലേക്ക് എത്താൻ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് എടുക്കും അപ്പോൾ അതിനുള്ളിൽ ചൂട് തടിഞ്ഞ് കഴിഞ്ഞാൽ വീട്ടിൽ എത്തിയിട്ട് കഴിക്കാൻ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല അപ്പം ഈ പ്രാവശ്യമെങ്കിലും വൃത്തിയിൽ നല്ലവണ്ണം ചൂട് പോകാത്ത രീതിയിൽ ചൂട് എനിക്ക് വീട്ടിൽ കിട്ടുമ്പോഴും അവിടെനിന്ന് നിങ്ങൾ തരുന്ന ഏകദേശം അതെ ചൂട് തന്നെ മെയിന്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ പ്രോപ്പർ ആയിട്ട് എനിക്ക് ഹീറ്റ് നിലനിൽക്കുന്ന രീതിയിൽ ഫുഡ് കൊണ്ട് തരണം